കൃഷിക്കായിട്ട് സർക്കാരിൻ്റെ അടുത്ത്നിന്ന് ഒത്തിരി ഒത്തിരി ആനുകൂല്യങ്ങളുണ്ട് സബ്സിഡികളുണ്ട് പിന്നെ കുടുംബശ്രീന്നാണെങ്കിൽ ജെഎൽജി പോലുള്ള ലോണുകളുണ്ട് കുടുംബ അതായത് കാർഷിക മേഖലയിലേക്കാണെങ്കില് നമുക്ക് പല തരത്തിലുള്ള ലോണുകള്ണ്ട് നമ്മള് കൃഷി ഓഫീസ് പോയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് കൃഷി ഇറക്കുക അപ്പോൾ നമുക്ക് പെട്ടന്നുള്ള നാശനഷ്ഠങ്ങളിപ്പോൾ വലിയ കാറ്റൊക്കെ വന്ന് വാഴയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിന്ന് നമുക്ക് ഗവണ്മെന്റിൽ നിന്ന് രീതിയിലുള്ള സഹായമുണ്ട് അപ്പം അതെല്ലാരും വിനിയോഗിക്കണം എന്നില്ല വിനിയോഗിക്കുന്നവരുമുണ്ട് നമ്മള് എന്ത് കാര്യ എന്ത് കൃഷി ചെയ്യുവാണെൽ അത് ഓരോ പിന്നെ കൃഷി ഓഫീസിനേ അല്ലെൽ പഞ്ചായത്തുമായി ബന്ദപ്പെടുവാണെൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും ഒരു പെട്ടന്ന് ഒന്നും ചെയ്യാതെ പെട്ടന്നൊരു സുപ്രഭാതത്തിൽ പോയിട്ട് ഇത്രേയും വാഴ നശിച്ചൂ എന്ന് പറയുന്നെല്ലാ നല്ല സബ്സിഡിയുള്ള കുറെ കാര്യങ്ങളുണ്ട് കൃഷി രീതിയില് അപ്പോൾ ആനുകൂല്യങ്ങളുണ്ട് വായ്പ്പകളുണ്ട് നമുക്ക് ലോണൊക്കെ അനുവദിച്ചു തരുന്നുണ്ട് എത്ര ലക്ഷം വേണെൽ നമുക്ക് കൃഷി ആവശ്യത്തിന് അനുവദിച്ചു തരുന്നുണ്ട് കുറച്ച് രേഖകള് ഒക്കെ വേണം എന്നെ ഒളളൂ പക്ഷേ നമുക്കത് അനുവദിച്ചു കിട്ടുമ്പോൾ അതിനൻസരിച്ച് ചെയ്യാനും പറ്റുമല്ലോ